ഹാന് പമ്പ് ഒരിക്കലും വേനല്ക്കാലത്ത് വരണ്ട് പോവാന് സാധ്യതയില്ല അത് ഈ വാട്ടര് അതോറിട്ടിക്കാർ അവിടെ പവര് ഹൗസ്സില് നിന്നും വാട്ടര് ഹൗസ്സില് നിന്നും സപ്ലൈ ചെയ്യുന്നതാണ് ഓരോരോ നാട്ടിലേക്ക് വെള്ളമില്ലാത്ത നാട്ട്കളിലേക്ക് എല്ലാം കുഴൽ വഴി സപ്ലൈ ചെയ്താണ് കുഴല് പ കുഴല് പൈപ്പ് വഴി വഴി ഭൂമിക്ക് അടിയില് കൂടെ കുഴിച്ച് അത് വഴി വരുന്ന വെള്ളവാണ് അത് വാട്ടര് ഹാന്ഡ് ഒരു ഹാന്ഡ് പൈപ് പമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് അത് പ്രെസസ് ചെയ്ത പ്രെസസ് ചെയ്ത കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ പ്രസ്സ് നമ്മൾ ചെയ്യുന്ന പ്രഷ് പ്രഷറിന്റെ ഫലമായിട്ട് വരുന്ന വെള്ളം കുറെശ്ശെ കുറെശ്ശെ കലങ്ങളിലേക്ക് ഒഴികി എത്തുന്നു ഞാൻ അത് ഒരിക്കലും തീര്ന്ന് പോകില്ല കാരണം അത് പവ വെള്ളത്തിന്റെ വാട്ടറ് അതോറിറ്റിയില് നിന്ന് വരുന്ന വലിയ ടാങ്കികളില് നിന്നും ക്ലോറിന് ഉ ഊട്ട് അത് ശുദ്ധീകരിച്ച് എത്തുന്ന വെള്ളവാണ് അത് ഒരുപാട് പാവങ്ങള്ക്ക് ഒരുപാട് ഉപകാരമാവുന്ന വെള്ളമാണിത് പാവം പാവങ്ങള്ക്കെന്നോ പണക്കാരെന്നോ അല്ല എല്ലാവര്ക്കും തന്നെ ഉപകാരപ്പെടുന്നതാണ് കാരണം വെള്ളം എല്ലാ മനുഷ്യര്ക്കും ഒരു പോലെയാണ് അത് കിട്ടാത്തവര്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും അപ്പം അങ്ങനെ ഉള്ളവര്ക്ക് ഒരുപാട് ഉപകാരപ്പെടുത്തുന്നതാണ് ഈ ഹാന് പമ്പ് ഹാന് പമ്പിൽ പ്രവര്ത്തിക്കുന്ന അല്ലെങ്കിൽ എത്തരത്തില് കൊണ്ട് വരുന്ന വെള്ളമാണെങ്കിലും അതൊരുപാട് ഉപയോഗിക്കുന്ന ഒ ഉ ഉപകാരപ്പെടുന്നതാണ് വേനല്ക്കാലത്ത് ഒരിക്കലും ഇത് വറ്റി പോവ്വേല കാരണം ഇത് മഴവെള്ള സംഭരണിയിൽ കൂടീം അല്ലാതെ കുളങ്ങളിൽ കൂടെയും കുളത്തിലും ഒക്കെ ഉള്ള ജലം ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്